ഹലോ ഹലോ ആ ആ അതുതന്നെ ട്രാവൽ ഏജൻസി ഗൈഡ് ആണ് ഓ ഓ ഓ കോഴിക്കോടുള്ള ഫാമിലിക്കൊക്കെ പോകാൻ പറ്റിയ എല്ലാ ഡെസ്റ്റിനേഷനിൽ ഒക്കെ നമുക്ക് പോകാം നമുക്ക് കക്കാടം മുതൽ വയലട പിന്നെ നാരങ്ങത്തോട് കരിയാത്തൻപാറ എല്ലാ സ്ഥലങ്ങളിലും പോവാം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പാക്കേജ് അറിയാനല്ലേ

അപ്പോൾ വൺ ഡേ അല്ലേ അപ്പോൾ ഇത് താമസം ഒന്നും ഇല്ലല്ലോ ആ ഓക്കേ ഒ ഫുഡ് ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ ഓ ആ ആ എന്ത് എല്ലാം കൂടി ഒരു ഫുഡും കാര്യങ്ങളും വണ്ടി എല്ലാം കൂടി നമുക്കൊരു ഒന്ന് ഒരു എട്ട് എട്ട് ഉറുപ്യെന്റെ അടുത്ത് ഒപ്പിക്കാം ആ മൊത്തം ആയിട്ട് മൊത്തം ആയിട്ട് ഫുൾ ഒരു എട്ട് ഉറുപ്യെന്റെ അടുത്ത് നമുക്ക് നല്ല നല്ല ഡ്രൈവേഴ്സ് ഉണ്ട് പിന്നെ നമ്മളെ കൂടെ തന്നെ ഒരു ഇങ്ങളെ കൂടെ തന്നെ ഒരു നല്ല ഗൈഡ് ഉണ്ടാവും നല്ല പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ സ്ഥലത്തിനെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റി അറിയാൻ പറ്റിയ നല്ല ഒരു ഗൈഡും ഉണ്ടാവും പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും

ഓ ഓ ഫുൾ ഡീറ്റെയിൽസ് അതിലേക്ക് അയയ്ക്കാം ആ ഓ ഓ എന്നാൽ പിന്നെ ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു ടൂ തൗസൻ്റ് എങ്ങാ ആ ആ ആ ആ അഡ്വാൻസ് മതി മും അ മ ഓക്കെ